ഞങ്ങളുടെ സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള വലിയ നഗരമെന്ന് പറയുന്നത് എറണാകുളമാണ് അതൊരു വലിയ നഗരം തന്നെയാണ് ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുകയും ജോലിചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവിധ സൗകര്യങ്ങളും എറണാകുളത്ത് ഉണ്ട് യാത്ര സൗകര്യം കൊണ്ടാണെങ്കിലും എന്തുകൊണ്ട് നോക്കിയാലും പിന്നെ എയർപോർട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട് അങ്ങനെ പലപല സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ ധാരാളം ഐ റ്റി കമ്പനികളുണ്ട് പഠിക്കുന്ന ഒരുവിധം പഠിച്ചു വരുന്ന മിക്ക ആളുകളും എറണാകുളത്തേയ്ക്കാണ് പോകുന്നത് കാരണം അവിടെ ജോലി ജോലി സാധ്യത വളരെ എളുപ്പമാണ് അവർക്ക് താമസിക്കാനും ജോലി ചെയ്യാനും എല്ലാ സൗകര്യം തിരിച്ചു വീട്ടിൽ വരാനാണെങ്കിൽ അതിനുള്ള യാത്ര സൗകര്യം എല്ലാം കൊണ്ടും നല്ലയൊരു നഗരം തന്നെയാണ് എറണാകുളം മിക്ക ഗ്രാമങ്ങളിലും ഈ ഈ സാഹചര്യം സാഹചര്യങ്ങളൊക്കെ കുറവാണ് യാത്രാസൗകര്യം കുറവുള്ള സ്ഥലങ്ങൾ ഉണ്ട് അതുപോലെതന്നെ എല്ലാം ഐ ടി കമ്പനികളോ അതുപോലെയുള്ള ജോലി സാധ്യതയുള്ള സ്ഥലങ്ങളോ ഒന്നും ഒരു സ്ഥലത്തും തന്നെയില്ല അതിനുവേണ്ടിയാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിലേയ്ക്ക് കുടിയേറുന്നത് അടുത്തുള്ള നഗരങ്ങളിലേയ്ക്ക് കുടിയേറുന്നതിൻ്റെ കാരണം തന്നെ